ഈ മഴക്കാലങ്ങളിലൊക്കെയാണ് കൂടുതലും രോഗങ്ങളൊക്കെ വരാറുള്ളത് മഴക്കാലരോഗങ്ങൾ അതേപോലെ കോളറ ജലദോഷം പനി ഇത് വേനൽക്കാലത്തും വരും ജലദോഷം മഴക്കാലത്താണ് കൂടുതലും ഈ ചിക്കൻ ഗുനിയ പനികളൊക്കെ വിട്ട് മാറാതെ വരുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് ഒരാൾക്ക് വന്നാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും വന്നിട്ടൊക്കെയാണ് ചിലപ്പോൾ പനിയൊക്കെ വന്നാൽ പോവാറുള്ളത് ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ മഴക്കാലത്ത് ഡ്രൈ ഡേ ആചരിക്കാറുണ്ട് വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കണ കൂടുതലും കൊതുക് പരത്തണ രോഗങ്ങളാണ് കൂടുതലും പെട്ടെന്ന് എല്ലായെവിടേക്കും പടർന്ന് പിടിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വല്ല ചിരട്ടയിലോ പാത്രത്തിലോ ടയറിൻ്റെ ഇതിലോ അങ്ങനെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കണുണ്ടെങ്കിൽ അതൊക്കെ കളയും പിന്നെ അതേപോലെ വീട്ടിൽ എല്ലാവിടേയും ശുചീകരണം ശുചീകരിക്കാറുണ്ട് അതേപോലെ വൈകുന്നേരങ്ങളിൽ പുകയിടും കൊതുകൊന്നും വരാതിരിക്കാൻ പിന്നെ എന്താണ് വേനൽക്കാലം ആണെങ്കിൽ പനി വന്നുവെന്ന് പറഞ്ഞാൽ തൊണ്ട വേദനയും പനിയൊക്കെയായിട്ട് വരും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വീട്ടിൽതന്നെ ഉള്ള പൊടിക്കൈ വിദ്യകളൊക്കെയാണ് യൂസ് ചെയ്യാറ് ചികിത്സയ്ക്കാണെങ്കിലും എന്തിനാണെങ്കിലും വീട്ടില് ഇപ്പോൾ ചുക്ക് കാപ്പി വെയ്ക്കുക അതേപോലെ വീട്ടിൽത്തന്നെ ആവി പിടിക്കുക അതേപോലെ മരുന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽനിന്നുതന്നെ കഴിച്ചിട്ടാണ് കൂടുതലും ഹോസ്പിറ്റലിലൊന്നും പോവാറില്ല വീട്ടിൽനിന്നുതന്നെ ഇതാക്കാറാണ് പതിവ്